നമ്മള് ഇപ്പോൾ ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട് സാധാരണ ഉപയോഗിക്കുന്നത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുരിഫയർ ഒക്കെ ആണ് നമ്മള് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടില് വരുന്ന വെള്ളമൊക്കെ എന്താ പറയുക പ്യുർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് വാട്ടർ പ്യുരിഫയർ ഒക്കെ മേടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഉമ്മയൊക്കെ എന്താ പറയുക യൂസ് ചെയ്തു കൊണ്ടിരുന്നത് എങ്ങനെയാ എന്ന് വെച്ചാൽ തുണികളിലൊക്കെ വെള്ളം ഇതാക്കിട്ട് അതില് മുകളിൽക്കൂടെ ഒഴിച്ച് അത് പ്യൂരിഫൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എന്തേലും കോട്ടൺൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് അതില് മൂടി അതിൻറ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ച് താഴെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് അങ്ങനെ ശുദ്ധീകരിച്ച് എടുക്കുന്നവരും ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക വേറൊരു രീതികളിലും ഉണ്ട് പക്ഷേ നമ്മള് ഇങ്ങനെ ഒക്കെ ആണ് കണ്ടുകൊണ്ട് ഇരുന്നത് മഴ വെള്ളം ഒക്കെ ശൂദ്ധീകരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഉമ്മച്ചി ഒക്കെ അങ്ങനെ ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ നമുക്ക് ചെറിയ ഇത് ഉണ്ട് അപ്പം അങ്ങനെ ഒക്കെ ആണ് നമ്മള് കൊണ്ട് വന്നേക്കുന്നത് പിന്നെ വെള്ളം എന്ന് പറയുമ്പോൾ മറ്റേ പുഴ എന്താ പറയുക മണല് കരിങ്ക മറ്റേ കല്ല് കരിക്കട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓരോ ലയർ ലയർ ആയിട്ട് വെച്ചിട്ട് അതിൽ കൂടെ വെള്ളം മുകളിൽ നിന്ന് ഒഴിച്ചിട്ട് താഴേക്കൂടെ പൈപ്പ് ഇട്ട് വലിച്ചെടുക്കുന്നത് നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയും വെള്ളം പ്യൂരിഫൈ ചെയ്ത് എടുക്കുന്നവരും ഉണ്ട് കാരണം ശുദ്ധീകരിച്ച് എടുക്കുന്നത് അങ്ങനെ നമ്മള് കണ്ടിട്ടുണ്ട്